എന്റെ നാട്ടിൽ എന്റെ ഗ്രാമത്തിൽ വൈദ്യതി ഉപയോഗിക്കുന്ന വ്യത്യസ്ത കാരണങ്ങള് എന്തൊക്കെയാണെന്നു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലം ആണ് പൊതുവേ ഞങ്ങളുടെ ഏരിയ മുഴുവൻ കൃഷിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഇറിഗേഷൻ കൊടുക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട് മോട്ടോർ എന്തായാലും ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈദ്യുതി കൊടുത്താല് മാത്രമാണ് അത് വര്ക്ക് ആവുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വൈദ്യുതി നല്ല രീതിയില് ഉപയോഗിക്കലുണ്ട്